കേരളത്തിൽ തന്നെ ആദ്യത്തെ പ്ലാസ്റ്റിക് വിമുക്ത ജില്ല എന്നറിയപ്പെടുന്നത് കോഴിക്കോട് ജില്ലയാണ് അതുകൊണ്ടുതന്നെ ഒരുപാട് മലിനീകരണങ്ങൾ തടയുന്നുണ്ടവിടെ ഇപ്പം പരിസ്ഥിതി ആയിക്കോട്ടെ ജലം ആയിക്കോട്ടെ അല്ലെങ്കിൽ മണ്ണായിക്കോട്ടെ എല്ലാത്ത്ന് എല്ലാറ്റിനെയും സംരക്ഷിച്ച് കൊണ്ടുവരുന്നുണ്ട് ആ ജില്ലയിൽ ഇപ്പം നം നമുക്ക് ഇപ്പോൾ ച് ചുറ്റുപാടും ഇപ്പം നമ്മളൊരുപാട് ഇപ്പോൾ ഒരുപാട് വാഹനങ്ങളുപയോഗിക്കുന്ന അതുകൊണ്ടുതന്നെ പുക പുകയുടെ ഇപ്പം നമ്മൾ പുക പരിശോധിച്ചില്ലെങ്കിൽ വായുമലിനീകരണമുണ്ടാകും അതുപോലെതന്നെ നമ്മൾ അപ്പോക് ബീച്ചും അതൊക്കെ കാര്യങ്ങളൊക്കെയുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഇപ്പോൾ എല്ലാവരും പ്ലാസ്റ്റിക്കുകളൊക്കെ കടലിൽ പോയി തളളും എന്നാൽ ഇതൊന്നും അവിടെയില്ല ഇപ്പോൾ അവിടെത്തന്നെ പ്ലാസ്റ്റിക് വിമുക്ത ജില്ല ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ബീച്ചായിക്കോട്ടെ ബീച്ചിലൊക്കെ ഒരുപാടാൾക്കാർ വന്നിട്ട് പല പല സമയങ്ങളിൽ വന്നിട്ട് സമയം ചിലവഴിക്കുന്നുണ്ട് എന്നാൽ പോലും ബീച്ച് സൈഡിലൊന്നും ഒരു പ്ലാസ്റ്റിക് പോലും നമ്മൾ കാണാനിടവന്നിട്ടില്ല അതെന്താണെന്നു വെച്ചാൽ അവിടുത്തെ ഒരു സംരക്ഷണം തന്നെയാണ് പ്ലാസ്റ്റിക് വിമുക്ത ജില്ല എന്നറിയപ്പെടുന്നത് പോലെ തന്നെ അവിടെ പ്ലാസ്റ്റിക് ഒരു സ്ഥലത്ത് പോലും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ഒരു വാട്ടർ ബോട്ടിൽ ആയിക്കോട്ടെ എല്ലാം തന്നെ അവിടെ നല്ല രീതിയിൽ തന്നെ ഒരു ഒരു വൃ ക്ലീ വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട് അതിനായിട്ട് ഒരു കൂട്ടം ആൾക്കാർ തന്നെയുണ്ട് ഇപ്പം ഇപ്പോൾ തൊ സർക്കാർ നൽകുന്ന തൊഴിലുറപ്പ് പദ്ധതി ആയിക്കോട്ടെ അതിൽപ്പെട്ട ആൾക്കാരൊക്കെ അല്ലെങ്കിൽ പിന്നെ ഇതുപോലുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവർ എല്ലാ രീതിയിലും ഇപ്പോൾ റോഡായിക്കോട്ടെ റോഡും പരിസരമായിക്കോട്ടെ ബീച്ച് സൈഡായിക്കോട്ടെ നല്ല രീതിയിൽ തന്നെ ക്ലീനായിട്ട് സൂക്ഷിക്കുന്നുണ്ട്